പാട്ട് കേൾക്കുവാൻ എല്ലാവരെയും പോലെ എനിക്കും നല്ല ഇഷ്ടമാണ് കാരണം പാട്ട് കേൾക്കുന്നത് നമ്മളിപ്പോൾ സങ്കടപ്പെട്ട് ഇരിക്കുമ്പോഴാണേലും നമ്മൾ ഒത്തിരി സന്തോഷിക്കുകയാണേലും നമ്മൾ പാട്ടുകാൽ കേൾക്കാൻ വേണ്ടി താല്പര്യപ്പെടും അപ്പോൾ പാട്ട് കേൾക്കുന്നതിലൂടെ നമുക്ക് ഒരു വലിയ സന്തോഷമാണ് ലഭിക്കുന്നത് അപ്പം പാട്ട് ഒരു സൊല്യൂഷനായിട്ട് ഒരു പരിഹാരമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതും എളുപ്പ മാർഗത്തിൽ തന്നെ പാട്ട് കേൾക്കുന്നതിലൂടെ ആത്മസംതൃപ്തി വരുകയും ടെൻഷൻസും നമ്മൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ ഒക്കെ മാനസികമായി ശരിയാക്കുവാൻ വേണ്ടീട്ട് സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് പാട്ട് എന്ന് നമുക്ക് പറയാവുന്നതാണ് ഒപ്പം ഇന്നത്തെ കാലത്ത് പല തരത്തിലുള്ള പാട്ടുകളുണ്ട് വെസ്റ്റേൺ നോർത്തേൺ സൗത്തേൺ പിന്നെന്താണ് അങ്ങനെ അങ്ങനെ ഓരോ സ്റ്റൈലിലെ പാട്ടുകളുമുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ മലയാളം ഹിന്ദി എല്ലാ ഭാഷകളിലും തമിഴ് എല്ലാ ഭാഷകളിലും തന്നെ പാട്ടുകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാവുന്ന കാര്യമാണ് അപ്പോൾ ഓരോ ഓരോ ഭാഷയിലെ പാട്ടിനും ഓരോ തരത്തിലെ അർത്ഥങ്ങളും ഓരോ തരത്തിലെ ശൈലിയുമാണ് ഉള്ളത് അതായത് മലയാളത്തിലെ പാട്ടുകളുടെ ശൈലി ആ അല്ല വേറെ തമിഴിലെ പാട്ടുകൾക്കൊക്കെ അതുപോലെതന്നെ ഹിന്ദിയിലെ പാട്ടിൻ്റെ ശൈലിയല്ല ഇംഗ്ലീഷ് പാട്ടുകൾക്ക് അങ്ങനെ ഓരോ പാട്ടുകൾക്കും ഓരോ ശൈലി ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്നു മലയാളം പാട്ടുകളെന്ന് പറയുമ്പോഴ്ത്തേക്കും മെലഡി വിഭാഗത്തിൽ പാട്ടുകളുണ്ട് അങ്ങനെ പലതരത്തിലെ പാട്ടുകളുണ്ട് മെലഡി ആയിട്ടുണ്ട് അല്ലാതെ ആഘോഷങ്ങൾക്ക് പാടുന്ന പാട്ട് പാട്ടുകളുണ്ട് അങ്ങനെ പലതരത്തിലെ പാട്ടുകൾ ഉണ്ടെന്ന് പറയാൻ കഴിയുന്നു അതുപോലെ തന്നെയാണ് തമിഴിലും ഇംഗ്ലീഷിൽ ഹിപ് ഹോപ്സുണ്ട് അങ്ങനെ പലതരത്തിലെ പാട്ടുകളുണ്ട് മലയാളത്തിലെ ഇഷ്ട ഗായകരെന്ന് പറയുമ്പോൾ സിത്താര ആ അവരുടെ പാട്ട് നല്ല രസമാണ് കേൾക്കാനൊക്കെ നല്ല സ്ത്രീത്വം തെളിയിച്ച് കൊണ്ടാണ് പാടുന്നതൊക്കെ അതുകൊണ്ട് തന്നെ എനിക്കത് വളരെ ഇഷ്ടമുള്ള ഒരു ഗായികയാണ് സിത്താര അതുപോലെ യേശുദാസ് യേശുദാസൊക്കെ നമ്മൾടെ കേരളത്തിൻ്റെ ഗായഗ ഗാനഗന്ധർവൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് അപ്പോൾ അത്രയ്ക്കും നല്ല ഗായകനാണ് ഒത്തിരി അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് അങ്ങനെ നമ്മുടെ കേരളത്തിൽ തന്നെ പല തരത്തിലുള്ള ഗായകന്മാരും ഗായികകളുമൊക്കെ ഉണ്ട് അവർ അവരുടെ തെളിവ് നല്ല രീതിയിൽ തെളിയിക്കുന്നുണ്ട് വളരെ പ്രസിദ്ധമായ ആൾക്കാർ വരെ ഉണ്ട് അപ്രസിദ്ധരായ ഗായകന്മാരും നമ്മൾടെ നാട്ടുകളിലൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ പല തരത്തിൽ പല വിഭാഗത്തിലെ ഗായകന്മാരുണ്ട് നാടൻ പാട്ട് ഗായകർ പിന്നെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഗായകർ അങ്ങനെ ഒട്ടേറെ തരത്തിലെ ഗായകർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു എൻ്റെ ഈ പ്രദേശത്ത് അടുത്തായിട്ട് അങ്ങനെ നാടൻ പാട്ടുകളൊന്നും അത്ര പ്രസിദ്ധമല്ലെങ്കിൽ കൂടി കോട്ടയം ജില്ലയിൽ നാടൻ പാട്ടുകൾ കുറെ ട്രൂപ്സൊക്കെ ഉണ്ട് അപ്പോൾ വൈക്കം ട്രൂപ്പൊക്കെ ഉണ്ട് അവരുടെ നാടൻ പാട്ടൊക്കെ നല്ല രസമാണ് കേൾക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ തൊട്ടടുത്തെന്ന് പറയുമ്പോൾ അങ്ങനെ ഗായകർ അങ്ങനെ ആരും ഇല്ല പക്ഷേ കോട്ടയത്തെക്കുറിച്ച് പറയുമ്പോൾ നാടൻ പാട്ടിന് നാടൻ പാട്ടിനും അല്ലാത്ത ശാസ്ത്രീയ സംഗീതത്തിനും ഒക്കെ പ്രാധാന്യം നൽകുന്ന ഒട്ടേറെ ഗായകരുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്